വൈദ്യുതിയുടെ ഉപയോഗമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ജനങ്ങളാണുള്ളത് വൈദ്യുതിയി ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു അസ്ഥയാണ് നമ്മു ടെ കാലാവസ്ഥയ്ക്കും നമ്മളുടെ ഒരുമ ജീവിത രീതിക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വൈദ്യുതിയുടെ ഉപയോഗം ആവശ്യമാണ് വൈദ്യതിയുടെ അപകടമെന്ന് പറയുന്നത് നമ്മൾ ഇടിയും മിന്നലൊക്കെയുള്ള സമയത്ത് മെയിനൊക്കെ ഓഫാക്കാൻ മറന്നു പോയെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് അപകടം സംഭവിക്കാവുന്നാണ് നമ്മൾടെ വീട് വീട് നശിക്കാനും അല്ലേ അപര സ്ഥാപനങ്ങൾ നശിക്കാനുമൊക്കെ അതിന് ഒരു കാരണമാകും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മഴയില്ലാതെ വരുന്ന അവസരങ്ങളിൽ ഇത് കിട്ടുക വൈദ്യുതിയുടെ ഉപയോഗം കുറയുന്നതിനാൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകാറുണ്ട് ജീവിക്കാൻ ആയപ്പോൾ നമുക്ക് വൈദ്യുതിയുടെ വൈദ്യുതിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലാ എന്നുള്ള ഒരവസ്ഥയിലേക്കാണിന്നത്തെ കാലാവസ്ഥയും ഓരോ കാര്യങ്ങളും പോകുന്നത് സകല കാര്യങ്ങളും അതായത് വ്യാപാര മേഖലകളുമെല്ലാം മറ്റും പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് അതില്ലാതെ പറ്റില്ല അതുകൊണ്ട് പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ഷോർട്ട് സർക്യൂട്ട് മൂലം നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ കത്തി നശിക്കാറുണ്ട് ജീവന് തന്നെ ഹാനി സംഭവിക്കാറുണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഏറ്റവും കൂടുതൽ എന്താണ് അപകടങ്ങൾ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളിലും പാർട്ടികളിലുമൊക്കെ വൈദ്യുതിയുടെ പ്രശ്നം കൊണ്ട് അതേ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് അല്ലെ അതിൻ്റെ ബോധവത്കരണം ഇല്ലാത്തതുകൊണ്ട് പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് അതൊക്കെ നമ്മൾക്ക് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് വൈദ്യുതി എന്നത് അത് ഏറ്റവും കൂടുതൽ അപകടം വരുന്നത് മഴക്കാലത്ത് ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാവുന്ന അവസരങ്ങളിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാറുള്ളത് അതൊക്കെ നമ്മൾ കുട്ടികളേയും അതൊക്കെ പറഞ്ഞു ശീലിപ്പിക്കണം കാരണം ഒരു നനഞ്ഞിരിക്കുന്ന സ്വിച്ച് ബോർഡിൽ തന്നെ നമ്മൾ ചെന്നു പിടിച്ചാൽ നമുക്ക് ഷോക്കേ് ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വരുന്ന ഒരാളുടെ അപകടത്തിനും കൂടി ജീവനു തന്നെ അപകടമാകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ കഴിവതും എലക്ട്രിക് ഉപകരണങ്ങളൊന്നും പിന്നെ ഇടിയും മിന്നലും മഴയുമുള്ളപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ല അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം ആ സമയങ്ങളിലൊക്കെ ഏതെല്ലാം കുട്ടികൾ നമ്മളുടെ കുട്ടികളെ കുറിച്ചു കൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഏറ്റവും അപകടം ഇടിയും മിന്നലിൽ നിന്നാണ് വൈദ്യുതിയുടെ വൈദ്യുതിയിൽ നിന്നുള്ള അപടങ്ങൾ ഉണ്ടാകാറുള്ളത് അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രിക് സാധനങ്ങൾ സ്വിച്ച് ബോഡുകളുമൊക്കെ നമ്മൾ ഇടയ്ക്ക് നോക്കണം കാരണം അതിനൊക്കെ ഒരു നനവ് സംഭവിച്ചാൽ തന്നെ നമ്മൾക്ക് ജീവനും അപകടമാവും നമ്മുടെ വീടിനും വ്യവസായ സ്ഥാപനങ്ങൾക്കുമെല്ലാം അപകടമാകും വൈദ്യുതിയില്ലാതെ നമ്മൾക്ക് ഒരു ഒരു മാതിരി ഒരു വ്യവസായ സ്ഥാപനവും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒരു ചെറുകിട വ്യവസായം പോലും ഒരു ചെറിയ കട പോലും പ്രവർത്തിക്കണെങ്കിൽ വൈദ്യുതി ഇല്ലാതെ പറ്റത്തില്ല കാരണം ഒരു ത്രാസു പോലും ഒന്നു ചാർജ്ജ് ചെയ്തിടണമെങ്കിൽ വൈദ്യുതി വേണം ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒന്നു തന്നെയാണ് ഇലക്ട്രിസിറ്റി പിന്നെ കേരളത്തിൽ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലുമൊക്കെ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടു അത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ അതിൻ്റെ ഉപയോഗവും നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ശ്രമിക്കാം ഒരു റൂമിൽ നിന്നൊരു മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് സ്വിച്ചൊക്കെ ഓഫ് ചെയ്യാനും ഫാനൊക്കെ ഓഫ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്